ആ ബേബി ചേട്ടനല്ലേ ആ എന്തായിരുന്നു വിളിച്ചത് എന്തായിരുന്നു ബേബി ബേബി ചേട്ടൻ വിളിച്ചത് എന്തിനായിരുന്നു

രണ്ട് മൂന്ന് ലിറ്റർ ഞാനിപ്പോൾ മിൽമായിൽ അളന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി പാലുകൾ ഒക്കെ ബേബി ചേട്ടനായിരുന്നു ബാക്കി ബാക്കി പാലുകളെല്ലാം ഞാൻ മിൽമായിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം പ്പെ അവിടെ നിന്ന് പെട്ടെന്ന് കുറവ് അതുകൊണ്ട് അങ്ങനെ കാരണം ഇത് പാലിൻ്റെ അളവിൻ്റ അനുസരിച്ചൊക്കെയാണ് ഇൻസെൻറ്റീവും അല്ലെങ്കിൽ ബോണസൊക്കെ വരുന്നത് അതുകൊണ്ട് പരമാവധി പാൽ അവിടെ പുറത്ത് കൊടുക്കരുതെന്നാണ് അവരുടെ ഒരു നയം അതെയോ ഒന്നാമത് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ പാലിന് കന്ന് കന്നാലിക്കൊരു ചെറിയ ഒരു തീറ്റ ഒരു തീറ്റ മടുപ്പോക്കെയായതുകൊണ്ട് പാൽ ഇച്ചിരി കുറവുണ്ട് അത് അ ആ അത് മറ്റ് അകിട് വീക്കം അകിട് വീക്കം അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തോ ഒരു തീറ്റ എട് കൊടുത്തതിൽ എന്തോ ഒരു വിഷാംശം വല്ലതും വന്നത് ആണോന്ന് സംശയം ഉണ്ട് ആ അതിൻ്റെ ഭാഗമായിട്ട് ഈ പച്ച പുല്ല് കൊടുക്കുന്നതിനകത്ത് വല്ല പുറ്റിലോ അല്ലേൽ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒക്കേ വെച്ച് കന്നുകാലിക്കത് ആ ഞാനത് ഇപ്പോൾ വൈകുന്നേരം ഞാൻ വിളിച്ച് പറയാം തരാൻ പറ്റുമോ ഇല്ലെയോ എന്നുള്ളത് കാരണം നാളത്തേക്കല്ലെ ആവശ്യം ആ അപ്പോൾ ഞാൻ സ്ഥലം വീട്ടിൽ ഇല്ല ഞാൻ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കന്നുകാലിയുടെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കിയിട്ട് കന്നുകാലിയെ കുറച്ചും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഉച്ചയോട് കൂടി വിളിച്ച് വെച്ചാൽ മതിയല്ലോ ഉച്ചയാകുമ്പഴത്തേക്കും ഉച്ചയാകുമ്പഴത്തേക്കും വിവരം പറഞ്ഞാൽ മതിയാകുമോ ഞാൻ പോയി വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം

ആ ഇപ്പം കന്നുകാലി ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ട് അത് ക്ഷീണം മാറി അല്ലെങ്കിൽ ദഹന കുറവിൻ്റെ പ്രശ്നം അത് മാറി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അല്ല അളക്കുന്നതിന് ഒന്നും കുഴപ്പമില്ല വൈകുന്നേരം അല്ല ഉച്ച കഴിഞ്ഞു വീട്ടിൽ ചെന്നതിന് ശേഷം ഞാനത് മെല്ലെ എങ്ങനെ ഉണ്ട് മുൻ വശമൊക്കെ തുടങ്ങിയൊന്നൊക്കെ അറിഞ്ഞിട്ട് ഞാനത് തിരിച്ച് അങ്ങോട്ട് വിളിക്കാം ആ ആ ഞാനത് സമയം ആകുമ്പോൾ തരാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് മറ്റേ അന്വേഷിക്കണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു ഞാനത് കൈകാര്യം ചെയ്യാം എന്തായാലും അല്ലേൽ വീട്ടിൽ ആ അല്ലേൽ ഒരു ദിവസത്തേക്കുള്ള വീട്ടിലെ ഞങ്ങളുടെ എടുക്കുന്ന പാലിൻ്റെ അളവ് കുറച്ചിട്ട് ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കാം ആ ഞാൻ ഉച്ച ഉച്ച കഴിയുമ്പത്തേക്കും വിളിക്കാം ഞാൻ വിളിച്ച് വിവരം പറയാലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബേബി ചേട്ടൻ പിന്നെ അഥവാ ഇനി ഇല്ലാന്ന് വന്ന് കഴിഞ്ഞാല് ബേബി ചേട്ടന് വേറെ പാൽ ഏർപ്പാട് ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ ഉച്ച കഴിഞ്ഞു പറയുമ്പത്തേനും അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം പിന്നെ ബേബി ചേട്ടനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ലല്ലോ നമ്മൾ തമ്മിൽ എപ്പഴും എന്താ ആളായത് കൊണ്ട് ആ

ആ മ്മ് ആ

നല്ല പാൽ തന്നെയാണ് ആ ആ ഞാൻ വിളിച്ചോളാം